നമ്മുടെ കുഞ്ഞിന് ആദ്യമായി നവജാത ശിശുവിനെ കിട്ടിയ ഉടനെ നമ്മള് സ്വർണ്ണം ഉരച്ചു തേനുമായിട്ട് വായില് തേക്കാറുണ്ട് അത് ചെയ്യുന്ന ആ പരിപാടി അതാണ് അത് കഴിയുമ്പോഴത്തേന് ഇരുപത്തിയെട്ടിന് നൂല്കെട്ട് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരമാണ് അത് ആഘോഷമായി ആയിട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് കെട്ട് ആഘോഷമായിട്ട് അതവര് അത് സ്വീകരിക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ക്രിസ്ത്യൻസ് ഇതാണെങ്കിൽ പിന്നെ അവര് ആ ക്രിസ്ത്യൻ ആണെങ്കിൽ നമ്മുടെ മാമോദിസ ചടങ്ങ് അങ്ങനെ ഉണ്ട് പിന്നെ ചോറൂട്ടെന്ന് പറഞ്ഞ് ഒരു ആദ്യം ചോറ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അത് ഇരുപത്തെട്ടും മാമോദിസയെല്ലാം കഴിയുമ്പോഴത്തേനും ചോറ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അത് നമ്മുടെ ക്ഷേത്രത്തിൽ കൊണ്ട് വെച്ചു ഹിന്ദു ആചാരപ്രകാരം ക്ഷേത്രത്തിൽ കൊണ്ട് വെച്ച് അതിന് ചോറ് കൊടുക്കും നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിൽ നമ്മളത് പള്ളിയിൽ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി നമ്മളതിന് ചോറൂട്ടും പള്ളിയിൽ കൊണ്ട് പോയാണ് നമ്മള് ചോറ് ചോറൂട്ടുന്നത് അങ്ങനെ മറ്റേ മുസ്ലീങ്ങളുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ആചാരപ്രകാരം അവരും അങ്ങനൊക്കെയാണ് ചെയ്യാറുള്ളത് അല്ല എല്ലാ ജാതിമതസ്ഥരുടെ കുഞ്ഞുങ്ങൾക്കും അതിൻ്റതായിട്ടുള്ള ആചാരപ്രകാരം അവര് ആണ് ചെയ്യാനുണ്ട് ആദ്യവർഷത്തിലനുഷ്ഠിക്കുന്ന വ്യത്യസ്തമായ ആചാരങ്ങൾ ഇതൊക്കെ വ്യത്യസ്ത ആദ്യവർഷത്തിൽ അനുഷ്ഠിക്കുന്ന വ്യത്യസ്തമായ ആചാരങ്ങൾ ഇതൊക്കെയാണ്